ഹലോ ഡോക്ടർ ഇല്ല മേഡം ആ ഞാൻ ഇപ്പോൾ പുറത്താണല്ലൊ ഉള്ളത് എന്താണ് പേര് ആ ജിത്തു ആണ് അല്ലേ ജിത്തു പറഞ്ഞോളു ജിത്തു എന്താണ് വിളിച്ചത് അതെ അല്ലേ ഇപ്പം ഞാൻ പുറത്താണുള്ളത് ഒരു കാര്യം ചെയ്യൂ ജിത്തു വീട്ടിലാണോ ഉള്ളത് ജിത്തു വീട്ടിലാണെ ഒരു കാര്യം ചെയ്യുമോ കുറച്ച് മഞ്ഞൾ മഞ്ഞളെടുക്കുക മഞ്ഞൾപ്പൊടി മഞ്ഞൾ എടുക്കുക മഞ്ഞളിൽ കുറച്ച് ഉപ്പും കലക്കി വെള്ളത്തിൽ കലക്കി ഇപ്പം കുടിക്കൂ പിന്നെ ഞാൻ നാല് മണി ആവുമ്പോൾ അത് ക്ലിനിക്കിൽ ഉണ്ടാവും ആ ആ നാല് മണി ഇതിപ്പോൾ തൽക്കാലത്തേക്ക് നിൽക്കാൻ ചെറിയ ഒരു ഡോസ് തന്നതാണ് ചെറിയ ഒരു ആശ്വാസം കിട്ടും അത് കുറച്ച് കഴിഞ്ഞ് നാല് മണി ആവുമ്പോൾ ഞാൻ ക്ലിനിക്കിൽ ഉണ്ടാവും ക്ലിനിക്കിൽ വന്നോളു ആ വാ ഇത് കുടിച്ചിട്ട് എന്തെങ്കിലും ടോക്കണ് ഇന്ന് എൻ്റെ അവിടെ നമ്പറ് ഉണ്ടല്ലൊ ക്ലിനിക്കിൻ്റെ അവിടെ വിളിച്ച് പറഞ്ഞാൽ മതി ആ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ മതി നാല് മണിക്ക് അതിലുണ്ടാവും ഉള്ളത് അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ ഇത് എടുക്ക് ഡോസ് എടുത്തിട്ട് എങ്ങനെ ഉണ്ട് അത് കഴിഞ്ഞ് ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആശ്വാസം ഇല്ലെങ്കിൽ എന്നെ വിളിക്ക് മഞ്ഞൾ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ മിക്സാക്കി കലക്കി കുടിക്കുക ചെറിയ ഒരു ആശ്വാസം കിട്ടും പിന്നെ ജിത്തുവേ ജിത്തുവോട് അന്ന് പറഞ്ഞതല്ലെ ഇങ്ങനെ വാരി കോരി കഴിക്കണ്ട എന്ന് ഇതേ പോലത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയം ഇതേ പല പ്രശ്നം എന്നല്ലേ ജിത്തു പറഞ്ഞത് അങ്ങനെ ഒരു ആ ഇപ്പം ഇനി ഇനി കഴിക്കും പണി കിട്ടുമെന്ന് അറിയുന്നില്ല അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടാവും ഗ്യാസ് ട്രബിൾ അതുകൊണ്ട് തന്നെ ഇനി കഴിക്കുമ്പോൾ കുറച്ച് നമ്മൾ കു റച്ച് കുറച്ച് കഴിച്ചാൽ മതി എല്ലാ ഒന്നും ഇതെല്ലാം അതെ ചുമ്മാതെ തൽക്കാലം ഇത് ഇത് ഞാൻ പറഞ്ഞ മഞ്ഞൾ കലക്കിയിട്ടുള്ള വെള്ളം കുടിക്കൂ അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞെ് എന്തെങ്കിലും ആശ്വാസം ഇല്ലെങ്കിൽ വിളിക്ക് ഇല്ല നാല് മണിക്ക് ക്ലിനിക്കിൽ വന്നാൽ മതി ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ

ശരി അ ഓക്കെ നന്ദി നന്ദി ജിത്തു ഓക്കെ ശരി ബൈ